ഹായ് മേഡം വെൽക്കം ആ ഓക്കെ ഇവിടെ ഇപ്പോൾ ഇഞ്ചിന് നോക്കുകയാണെങ്കിൽ മുപ്പത്തിരണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വേറെ ബ്രാൻ്റ് നോക്കുകയാണ് പറയുമ്പോൾ സാംസങ്ങുണ്ട് എൽ ജിയുണ്ട് ഷവോമിയുണ്ട് അങ്ങനെ വേറെയൊന്ന് രണ്ടും പിന്നെ ലോക്കൽ ബ്രാൻ്റ്സും ഉണ്ട് എൽ ജിയിൽ മുപ്പത്താറ് ഇഞ്ചിൻ്റെ എൽ ജിൽ മുപ്പത്താറിഞ്ചിൻ്റെ ഇപ്പോൾ വരണത് ഓഫർ പ്രൈസ് വരുന്നതാണെങ്കിൽ പതിനാല് അറുന്നൂറാണ് ആ അപ്പോൾ അതിനു വന്നിട്ട് നമുക്ക് നാലു കൊല്ലത്തെ വാറൻ്റിയുണ്ട് നമുക്ക് ബ്ലൂടൂത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും അതിലേയ്ക്ക് അതുപോലെ ഫോണെന്നു നമുക്ക് ഡയറക്ട് ആയിട്ട് കണക്ട് ചെയ്യാം പിന്നേ ഈ നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഹോം തീയറ്ററ് ആ അതിനൊക്കെ നമ്മൾ റെഡി ആക്കിത്തരാം ഇൻസ്റ്റൊളേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം സാംസങ്ങിൻ്റെ മോഡലാകുമ്പോൾ നമുക്ക് ഇതേ മുപ്പത്തിരണ്ടിഞ്ചിൻ്റെ വന്നിട്ട് പതിനേഴാണ് പതിനേഴ് വരണുണ്ട് ഏകദേശം ആ അതിന് അത് രണ്ട് ഒരേ വലിയ കുഴപ്പമില്ല അതായത് രണ്ടും എൽ ജി ബ്രാൻ്റ് മോഡലാണ് നമുക്ക് കാലങ്ങളായിട്ടുള്ളതാണ് സാംസങ്ങാണെങ്കിൽ പക്ഷേ എൽ സിഡിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി മികവ് മുന്നിട്ട് നിൽക്കണത് ഇപ്പോൾ നമുക്ക് സാംസങ്ങ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവർക്ക് മൂന്നു കൊല്ലത്തെ വാറൻ്റിയുണ്ട് പിന്നെ റീപ്ലേസ്മെൻ്റ് വാറൻ്റിയാണ് അവർക്ക് വരണത് എൽ ജിക്ക് ഒരു കൊല്ലം മാത്രമേ റീപ്ലേസ്മെൻ്റ് വാറൻ്റിയുള്ളു അത് കഴിഞ്ഞാൽ റിപ്പയറാണ് സാംസങ്ങിന് രണ്ടു കൊല്ലത്തെ റീപ്ലേസ്മെൻ്റ് വാറൻ്റി കിട്ടും പിന്നൊരു കൊല്ലത്തെ സെർവീസും കിട്ടും എൽ ജിക്ക് സെർവീസുണ്ടല്ലോ അതാണ് പറഞ്ഞത് അവർക്ക് ഒരു കൊല്ലം റീപ്ലേസ്മെൻ്റ് വാറൻ്റിയും എൽ ജിക്ക് പിന്നെയൊരു കൊല്ലം സർവീസും ആണ് എന്തെങ്കിലും കംപ്ളേയിൻ്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്തു തരും അതാണ് ഞങ്ങൾ വിളിച്ചത് വാഷിംഗ് മെഷീന് വന്നിട്ട് ഏതിൻ്റെ ഏതു കമ്പനിയാണ് നോക്കുന്നത് വേൾപൂളുണ്ട് എൽ ജിയുണ്ട് വേൾപൂളല്ലേ അതിൽ എത്ര ലോഡാണ് ഉദ്ദേശിക്കുന്നത് ഒമ്പത് പത്ത് എത്ര കിലോയിൻ്റെ ഇതാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് നമുക്ക് സ്റ്റാർട്ടിങ്ങ് വന്നിട്ട് ആറു കിലോ ആണ് മാം ആറ് കിലോൻ്റെ ഫ്രണ്ട് ഓപ്പൺ വേണോ ടോപ് ഓപ്പൺ വേണോ അതിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കുണ്ട് സെമി ഓട്ടോമാറ്റിക്കുണ്ട് ഏതാണ് വേണ്ടത് അപ്പോൾ അതിൽ വാഷറും ഡ്രൈയറും കൂടി വരണത് വേണോ ആ ഓക്കെ അതിൽ വന്നിട്ട് മറ്റേ നമുക്ക് റേറ്റിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ തൗസൻ്റിലാണ് സ്റ്റാർട്ട് ചെയ്യണത് അതിൻ്റെ ഒരു വേറെ വേരിയൻ്റ് വന്നിട്ട് റ്റൊൽ തൗസൻ്റുണ്ട് ഫോർട്ടീൻ തൗസൻ്റുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് ഏ സെമിയാണെങ്കിൽ കുറച്ച് കമ്മിയാകും ഒരൂ എട്ടായിരം ആ റേഞ്ചാണ് സ്റ്റാർട്ടിങ്ങ് വരുക അതിലിപ്പോൾ നിങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ടോ മാം ആ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ബാങ്കിലെ ഇ എം ഐൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളുമൊക്കെയുണ്ട് കേട്ടോ ആ ആയിക്കോട്ടെ എന്നാൽ ആ അങ്ങനെയാണ് പറയുമ്പോൾ മാമിൻ്റെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ഒന്ന് തരണം നമുക്കതിൻ്റെ സിബിൽ സ്കോറും കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഏതിനാണ് നിങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുകയാണോ അതോ നമ്മളേതെങ്കിലും അറേഞ്ച് ചെയ്ത് തരണോ ഇ എം ഐ ഒപ്ഷൻസ് ഇപ്പോൾ ഇവിടെ ബജാജിൻ്റെ ഇ എം ഐ ഒപ്ഷനുണ്ട് അതിൽ നോകോസ്റ്റ് ഇ എം ഐ ആണ് വരണത് അപ്പം നിങ്ങൾക്കേതാണ് ഏതാണ് എക്സാക്ട് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് അടച്ചാൽ മതി പിന്നെ നമ്മുടെ കട കൊച്ചുപള്ളിയിലെ ഏജൻസീൻ്റെ വക പ്രത്യേക ഡിസ്ക്കൗണ്ട് ഉണ്ടാകും നിങ്ങൾക്ക് ഓക്കെ മാം അപ്പോൾ എന്നാൽ അത് രണ്ടും പാക്ക് ചെയ്യുകയല്ലേ അപ്പോൾ താഴത്തെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾ ഡായിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ നമ്പറെഴുതി കൊടുത്താൽ അത് കറക്ട് അഡ്രെസിലാണോ വരേണ്ടത് അവിടേയ്ക്ക് എത്തിച്ചു തരാം അവിടെ നാളെ ഇന്നു വരില്ല എന്തായാലും നാളത്തേയ്ക്ക് സാധനം ഇന്നെത്തും ഇൻസ്റ്റൊലേഷന് വേണ്ടിയിട്ട് ആൾക്കാർ നാളെ വന്നോളും കേട്ടോ ഓക്കെ മാം താങ്ക് യു